ഞാൻ ബൈക്കിങ്ങില് യാത്ര പോകുമ്പോഴായിരുന്നു എനിക്കേറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് സ്വന്തായിട്ട് വണ്ടി ഇല്ലായിരുന്നു ഞാൻ ഒരു വേറൊരാളുടെ വണ്ടി വാടകയ്ക്കെടുത്തിട്ടായിരുന്നു പോയിരുന്നത് ഒരു ക്ലബ് ക്ലബ്ബായിട്ട് ടൂർ പോവായിരുന്നു റൈഡിങ്ങ് പോയതാണ് കേരളം തൊട്ട് അങ്ങ് തിരുവനന്തപുരം വരെ പോയിരുന്നു അതിന്റിടയ്ക്ക് ഒര് ഒരു ദിവസം ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ക്യാമ്പിൽ നിന്നു ബൈക്കിങ്ങിൻ്റെ ഓഫ്റോഡ് കുറെ കേറി ഓഫ്റോഡിൻ്റെ അടുക്കെ ഒരു വീഴ്ചയൊക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് ദിവസം അവിടെ തന്നെയായി പിന്നെ നമ്മള് റോഡില്ക്കൂടെ പോകാൻ തുടങ്ങി പിന്നെ നല്ല വൈബുള്ള ബീച്ചിൽ പോയി ബീച്ചിൽ കൂടെ ബൈക്കോടിച്ചു അങ്ങനൊക്കാണ് കൂടുതൽ ഉള്ളത് പിന്നെ ഓഫ്റോഡിങ്ങിൽ നല്ല ഇതാണ് നല്ല വൈബായിരുന്നു ഓഫ്റോഡിൽ കൂടെ കയറാൻ നല്ല വൈബായിരുന്നു പിന്നെ ബീച്ചിൽ കൂടെ പോയി ബീച്ചിൽ നിന്ന് വണ്ടി കറക്കി സ്കിഡ് ചെയ്തു സ്റ്റണ്ടിങ്ങ് ചെയ്തു അങ്ങനത്തെയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു സ്കിഡ് സ്റ്റണ്ട് ചെയ്തു പക്ഷേ എന്നാലും എനിക്കൊരു സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരുന്നു വേറൊരാളുടെ വണ്ടി ആയിട്ടായിരുന്നു വന്നിരുന്നത്